ഹലോ ഹലോ സ്വിഗ്ഗി അല്ലേ ഞാന് വിളിച്ചതെന്താണെന്നോ എനിക്ക് ഞാൻ ചൂടുള്ള കുറച്ച് വെള്ളം ഒന്ന് വേണമായിരുന്നു ആ വെള്ളം നമ്മൾക്ക് ഇവിടെ ഇപ്പം ഞാന് പുതിയതായിട്ട് ഇവിടെ ഹോസ്റ്റലിൽ വന്ന കാരണം എനിക്കിവിടെ ചൂട് വെക്കാനായിട്ടുള്ള ഒന്നുമില്ല അപ്പം എന്തെങ്കിലും ചൂടായിട്ടുള്ള എന്തെങ്കിലും വെള്ളം അങ്ങനെയെന്തെങ്കിലും കിട്ടുമോ നമുക്കിപ്പം കിട്ടുമായിരിക്കുമല്ലെ അപ്പം ഞാൻ അഡ്രസ്സ് പറഞ്ഞുതരാം ആ അഡ്രസ്സിലോട്ടൊന്ന് കൊണ്ടുവരാന് പറ്റുമോ പറ്റുമല്ലേ ഞാൻ ഞാൻ ഏതായാലും ഇട്ടേക്കാം ഇട്ടേക്കാം ഓക്കെ ഓക്കെ

ആ നല്ല ചൂട് വേണം നല്ല ചൂട് വേണം അത്യാവശം നല്ല ചൂടായിട്ടുതന്നെ കിട്ടുന്നതായിരിക്കും നല്ലത് കാരണം ഇവിടെ നല്ല തണുപ്പുണ്ട് പിന്നെ എനിക്കാണെങ്കിൽ തണുത്ത വെള്ളം കുടിക്കാന് പറ്റത്തില്ല അപ്പോൾത്തന്നെ നിങ്ങൾ ചൂടുവെള്ളം തന്നാല് അത്രയും നല്ലത് നല്ല ചൂടായിക്കോട്ടേ സാരമില്ല നല്ല ചൂടായിക്കൊട്ടേ ആ ശെരി ആ അപ്പോൾ എപ്പോഴത്തേക്ക് കൊണ്ടുത്തരും എട്ടുമണിയല്ലേ ആ ഓക്കെ ഓക്കെ ഞാൻ ഏതായാലും വിലാസമിട്ടേക്കാം അപ്പം ഒര് എട്ടുമണിയൊക്കെ ആവുമ്പോഴത്തേക്കും ഒന്ന് എത്തിച്ചേക്കണേ ആ എത്തിച്ചേക്കാം ആ ഓക്കെ ഞാൻ ഞാനെല്ലാം ഇട്ടേക്കാം ആ ഓക്കെ ആ ശരി ശരി ശരി